അതെയല്ലോ ആരായിരുന്നു വിളിക്കുന്നത് ആ അതെയോ ആ പുതിയ തുണിയൊക്കെ വന്നിട്ടുണ്ടോ ആ എനിക്ക് സാരിയായിരുന്നു ആവശ്യം അപ്പോളൊരു ഒരു ഉണ്ടല്ലേ അതെ ആ എനിക്കൊരു കല്യാണത്തിന് പോകാനായിരുന്നു ആഹാ കളര് ഏതൊക്കെയാണുള്ളത് ആ ആ ഉണ്ടല്ലേ ഇഷ്ടംപോലെ ഐറ്റം വന്നിട്ടുണ്ട് ആഹാഹാ ആ ചുരിദാറും പുതിയത് വന്നിട്ടുണ്ടല്ലോ അല്ലെ ആഹാ കൂടിയ ഐറ്റം തന്നെയുണ്ട് ആഹാ അതെയല്ലെ ആ ആ എങ്കില് എനിക്കതിൻ്റെയൊരു ഫോട്ടോ അയച്ചുതരണേ ഫോട്ടോ ഈ നമ്പറില് എനിക്ക് വാട്സാപ്പിലേക്ക് അയക്കുകയാണെങ്കില് എനിക്കൊന്ന് കണ്ടിട്ട് വരാമല്ലോ അല്ലെങ്കില് സമയം കുറവൊന്നുമില്ല ആഹാ ആ എനിക്കൊന്ന് ആദ്യം വാട്സാപ്പില് അയച്ചുതരൂ അതിനുശേഷം ഞാന് അതൊന്ന് കണ്ടിട്ട് വരാം ആ ഞാന് ആ ഇത് വാട്സാപ്പ് വാട്സാപ്പ് നമ്പറാണ് ആ പിന്നെ ഡെയ്ലി ഡെയ്ലി യൂസിന് പറ്റിയ ഐറ്റം വന്നിട്ടുണ്ടോ ഉണ്ടല്ലേ ആഹാ ആ ആ കോട്ടൺ ഇപ്പോഴത്തെ ഈ വേനൽക്കാലത്ത് കോട്ടണ് ഐറ്റം ആണ് ആഹാ റിഡക്ഷനില്ലെ ഹലോ റിഡക്ഷന് എന്തെങ്കിലുമുണ്ടോ ഉണ്ടല്ലേ ആ ആഹാഹാ ആ എങ്കിലും ആ ആ കളറൊന്ന് വാട്സപ്പിലെഴുതി അയക്കണം പിന്നെ കുട്ടികൾക്കുള്ള ഐറ്റം ഉടുപ്പുകളൊക്കെ വന്നിട്ടില്ലേ ഉണ്ടല്ലേ ആഹാ ആ ആ ആ എനിക്കാ കട ഇഷ്ടമാണ് കാരണമെന്താണെന്ന് ചോദിച്ചാല് ഞാന് ഉദ്ദേശിക്കുന്ന ഐറ്റമെല്ലാം ആ കടയില് നിന്ന് കിട്ടാറുണ്ട് അതു കാരണം പിന്നെ നിങ്ങള് എല്ലാം പരിചയമുള്ളവര് ചെയ്യുന്നത് കാരണം എനിക്ക് ഇഷ്ടമാണ് അപ്പം വാട്സപ്പിലേക്ക് ആ ഡ്രെസ്സ് എടുക്കാറുള്ളതാണ് ആ ഉണ്ട് ഉണ്ട് ആ അതെയല്ലേ ആ ആഹാ ആ എനിക്ക് ആ ശരി ആദ്യമൊന്ന് വാട്സപ്പിലയയ്ക്കൂ അതിനുശേഷം ഞാന് വന്ന് ഇത് സെലെക്റ്റ് ചെയ്തുകൊള്ളാം അപ്പോള് എന്നെ വിളിച്ചതിന് വളരെയേറെ നന്ദിയുണ്ട് കേട്ടോ അപ്പോള് ഞാന് അത് വന്ന് കണ്ട് ഓക്കെ ഓക്കെ താങ്ക് യൂ